കുടുംബത്തിലെ കാര്യം പറഞ്ഞാൽ കുടുബത്തിൽ സ്ത്രീയും പുരുഷനും രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിൽ രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് ജോലി ചെയുന്നതെങ്കിൽ രണ്ട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു പരസ്പരം സഹകരിച്ചും ഒരാൾക്ക് ആദ്യം പോകണമെങ്കിൽ നേരത്തെ പോകണമെങ്കിൽ മറ്റൊരാൾക്ക് നേരത്തെ പോകണമെങ്കിലും അതെല്ലാം പറഞ്ഞ് ജോലി എല്ലാ കാര്യങ്ങളും നോക്കി പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി പിള്ളേരുടെ കാര്യങ്ങളും നോക്കി എല്ലാം ഉത്തരവാദിത്വത്തോടു കൂടി ഒക്കെയാണ് പോകുന്നത് പിന്നെ പണ്ടത്തെ മാതിരി ഉള്ളൊരു സ്ത്രീ പണ്ടത്തെ മാതിരി അല്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും ജോലിയല്ലേ ഒരു വീട്ടിൽ എത്ര സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ മൊത്തം എത്ര പുരുഷന്മാർക്കുണ്ടോ എല്ലാവർക്കും ജോലിയാണ് എന്തെങ്കിലും ഒരു ജോലി കാണും ഓരോരുത്തരുടെ സമയം സാഹചര്യം ഒക്കെ അനുസരിച്ച് അവരുടേതായ ജോലിക്കവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകും അങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ ജോലികൾ പങ്ക് ചെയുന്ന വ ആദ്യം പോകേണ്ടവർക്കാണെങ്കിൽ അവർ പോകുക അല്ലെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി സ്ത്രീ പുരുഷനും അവർ ഹെല്പ് ചെയ്തു കാര്യങ്ങൾ ഒക്കെ തീരുമാനിച്ച് അവർ പോകും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ സ്കൂളിൽ അയക്കും കോളേജിൽ പോകേണ്ടവരാണെങ്കിൽ ആണെങ്കിൽ അത് അങ്ങനെ എല്ലാ ക്രമികരങ്ങളും ഇപ്പോൾ പണ്ടത്തെ കുറേ വർഷങ്ങൾക്കു മുന്നത്തെ മാതിരി അല്ല എല്ലാവർക്കും ജോലിയാണ് കുടുംബത്തും ഉത്തരവാദിത്വം കൂടുതലാണ് കുട്ടികൾ ഒക്കെ കുറവാണെങ്കിലും ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ് അത് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒക്കെയാണ് പോകുന്നത് ഓഫീസിലായാലും അല്ലാത്തിടത്ത് എവിടെയൊക്കെയാണെങ്കിലും അതിൻ്റേതായ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് അവർ പോകുന്നത് എല്ലാ കാര്യങ്ങളും പുരുഷനും പങ്കുവെച്ച് ഒരു പരമാവധി അഡ്ജസ്മെന്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയികൊണ്ടിരിക്കുന്നത് പണ്ട നേരത്തെ മാതിരിയുള്ളൊരു ഇപ്പോൾ അണു കുടുംബങ്ങളാണെങ്കിലും എല്ലാവർക്കും ജോലി അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അങ്ങനെ പോകുന്നു നമ്മുടെ കുടുംബത്ത് ആണെങ്കിൽ ഞാൻ രാവിലെ പോകും വൈഫിന് ജോ ജോലിയുണ്ടെങ്കിൽ അവളെ രാവിലെ ഏറ്റു അവളുള്ള ജോലിക്ക് പോകും മക്കളെ സ്കൂളിൽ വിടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുപോകും എന്നാലുമൊരു ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെ പോകുന്നുണ്ട് പിന്നേ ചില കുടുംബങ്ങളിലൊക്കെ ക്കെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് എല്ലാം കുടുംബത്തും ഒരുപോലെ അല്ലല്ലോ ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് അഭിപ്രായം മാത്രം അൻപത് അറുപതു ശതമാനം കുടുംബങ്ങൾ മാത്രം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പത്തു നാല്പതു ശതമാനം കുടുംബങ്ങളിൽ പല പല വിഷയങ്ങളിലും കുഴപ്പങ്ങളുണ്ട് അത് ഓക്കേ